ഹലോ ആ ചേച്ചി ഞാൻ കുന്നന്താനത്ത് നിന്നായിരുന്നേ വിളിക്കുന്നത് എൻ്റെ പേര് വിൻസി എന്നാണ് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നായിരുന്നു കുറച്ച് വിത്തൊക്കെ മേടിക്കാൻ വേണ്ടി ആ അതെ അതെ അതെ അതെ ആ ഹ ഹ എനിക്ക് കുറച്ച് വിത്തുകളൊക്കെ വേണമായിരുന്നു ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു കെ എൽ എം ൻ്റെ അണ്ടറിൽ ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു കൃഷി സ്ഥലം എടുത്തിട്ട് അവിടെ കുറച്ചു നടാനൊക്കെയാരുന്നു കുറച്ച് വിത്തുകളും തൈകളും ഒക്കെ ആയിട്ട് എനിക്ക് വേണമായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളതൊന്നും പറയാവോ ആ ഓക്കെ ആ ഓക്കെ ആ ആ സ്ഥ സ്ഥലമുണ്ട് സ്ഥലമുണ്ട്

ആ ഇടാ ഇടാം അതെ ഈ പറയുന്ന വിത്തുകൾ ഒക്കെ ഹൈബ്രിഡ് ആണോ അതോ സാധാരണ ഹൈബ്രിഡ് വിത്തുകളാണ് ആ അപ്പം ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യുന്ന വല്ലതും ആണോ അതുകൊണ്ട് എന്തെങ്കിലും ഉം ആ ആ ഓക്കേ ഞങ്ങൾക്ക് കുറച്ച് ഓ ശരി അത് മനസ്സിലായി അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് തൈ ആയിട്ട് തന്നാൽ മതി നമുക്ക് ഇട്ട മതിയായിരിക്കുമല്ലോ അല്ലെ വേറെ വളങ്ങൾ ഒന്നും അങ്ങനെ ചേർക്കണ്ടായിരിക്കുമല്ലോ അല്ലേ ജൈവവളം ചെയ്താൽ മതി ആ ശരി ചേച്ചി അപ്പം അത് തന്നെ കിളച്ച് ഇടുമോ ട്രാക്ടറോ അങ്ങനെ വല്ലതും ഒക്കെ വേണോ

ഓ ശരി ശരി ആ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ ആ ഓക്കേ ഓക്കേ ആ ആ ആ ശെരി ആ ആ ആ ഓ ശരി ശരി എന്നാൽ ഞാൻ കുഴി എല്ലാം റെഡിയാക്കിയിട്ടിട്ട് ചേച്ചിയെ വിളിക്കാം ഞങ്ങൾക്ക് കുറെ ഒരു പത്തമ്പത് സെൻ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്ന് വിതയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങള് ഈ ചീര എങ്ങനെ പായ്ക്ക് തയ്യായിട്ടാണോ അവിടുന്ന് തരുന്നത് അരിയായിട്ട് ആ ഒര് ഓ ശരി ശരി ആ ആ ഉം ഉം ഉം ആ ആ ഓ ശരി ചേച്ചി ശരി അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് ചീര അരി ഒരു പാക്കറ്റ് മതിയായിരിക്കുമല്ലോ അല്ലേ ഒരു നല്ല രണ്ടു തടം ഇടാനായിട്ട് ആ കണക്കിന് എന്നാൽ എടുത്തോ പിന്നെ ഒരു അമ്പത് പ്ലാവിൻ തയ്യ് പിന്നെ ഒര് അമ്പ പച്ചമുളക് വേണം പച്ച ആ പച്ചമുളക് വേണം കാന്താരി ആ ആ പക്ഷേ നമുക്ക് ഈ കാന്താരി എവിടെയെങ്കിലും വിൽക്കാൻ പറ്റുമോ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ചങ്ങനാശേരിയിൽ നമുക്ക് അവിടെ ആണോ അല്ല വിലയുണ്ട് പക്ഷേ മാർക്കറ്റിൽ എവിടെയാണ് സെയിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ടോ ആ അപ്പം എന്നാൽ ശരി ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ റെഡിയാക്കിയിട്ടിട്ടെ ഞാൻ വിളിക്കാം അപ്പോൾ എനിക്ക് റെഡിയാക്കി വെച്ചാൽ മതിയേ ഓക്കേ ഓക്കേ താങ്ക്യൂ ശരി ശരി ഓക്കെ